എന്റെ അറിവിലുള്ള സർക്കാരിൻ്റെ പദ്ധതികൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കില് വെച്ചിട്ടുണ്ടെങ്കില് കുറെ ഒരുപാട് പദ്ധതികളുണ്ട് അതായത് നമുക്കുപകാരമുള്ള അതായത് മെയിനായിട്ട് പറയുകയാണെങ്കിൽ പെൻഷൻ അതായത് വാർദ്ധക്യ പെൻഷൻ വിധവ പെൻഷൻ അങ്ങനെയുള്ള ഒരുപാട് പെൻഷൻ ഉണ്ട് അതായത് വികലാംഗ പെൻഷൻ അതൊക്കെ വളരെ ഉപകാരമുള്ള ഒരു കാര്യങ്ങളാണ് ഇപ്പോൾ വയസ്സായവരെയൊക്കെ ചിലപ്പോൾ പിന്നെ കുട്ടികളൊന്നും നോക്കാത്ത ഒരു അവസ്ഥ വരുമ്പം അവർക്ക് മാസം സർക്കാര് തരുന്ന ഒരു തുച്ഛമായ തുച്ഛമായ പൈസ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അവർക്കത് വിലപ്പെട്ട പൈസ തന്നെയാണ് ആ പൈസ കിട്ടുമ്പോൾ അവർക്ക് അവരുടേതായ കാര്യങ്ങള് കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റും പിന്നെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വീട്ടില് അതായത് അച്ഛനും മക്കള് നോക്കുന്ന പിന്നെ അച്ഛനമ്മമാരാണെങ്കില് ഇപ്പം ഭക്ഷണം കാര്യങ്ങളൊക്കെ കൊടുക്കവാണെങ്കില് അവർക്ക് സ്വന്തായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ ആ കാര്യങ്ങളൊക്കെ പിന്നെ അവർക്ക് ചെയ്യാൻ പറ്റുവല്ലോ അതായത് അവർക്ക് സ്വന്തം എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് അവർക്ക് ആ പൈസ കൊണ്ട് ചെയ്യാൻ പറ്റും അതൊരു ഉപകാരമാണ് അതായത് വിധവകൾക്ക് അതായത് വിധവകൾക്ക് ഭർത്താക്കന്മാരൊന്നും ഇല്ലാത്തവർക്ക് പൈസ പൈസ കൊടുക്കുന്നത് അവർക്കും ഭയങ്കര സഹായമാണ് അതുപോലെ വികലാംഗർക്ക് അതായത് അവർക്ക് ജോലിക്കൊന്നും പോകാൻ പറ്റില്ലല്ലോ അപ്പോൾ അവർക്ക് അങ്ങനെ പൈസ കൊടുക്കുന്നു എന്നുളളതാണ് പിന്നെ അതേപോലെ ഗർഭിണികള് അതായത് ഗർഭിണികൾക്കൊക്കെ സർക്കാര് അയ്യായിരം രൂപ കൊടുക്കുന്നുണ്ട് പ്രധാന മന്ത്രിൻ്റെ ഒരു ഇതാണ് അതൊക്കെ നല്ലതാണ് അങ്ങനെ ഒരുപാട് സംരംഭങ്ങളുണ്ട് സർക്കാരിൻ്റെ